ഞാന് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ കുറെ അധികം പഴഞ്ചൊല്ലുകളൊക്കെ യൂസെയ്യാറുണ്ട് നമ്മള് ഇപ്പോള് കുട്ടികളോട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയ്മ്പഴത്തേന് അവര്ക്ക് ഇങ്ങനെ ചെറിയചെറിയ പഴഞ്ചൊല്ലുകളോട് ഞാനുപമിച്ച് സംസാരിക്കാറുണ്ട് ചൊട്ടയിലെ ശീലം ചുടല വരെ അല്ലെങ്കില് വിത്ത് ഗുണം പത്ത് ഗുണം അട്ടയെപ്പിടിച്ച് മെത്തയില് കിടത്തിയാല് കിടക്കുമോ അല്ലാതെതന്നെ സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാല് ആപത്ത് കാലത്ത് കാ പത്ത് തിന്നാം കാക്ക കുളിച്ചാല് കൊക്കാകുമോ അങ്ങനെയൊക്കെ പറയാറുണ്ട് അതുപോലെതന്നെ കുട്ടികള് സംസാരിക്കുമ്പോഴത്തേന് നമ്മള് പറയുന്നതിന് അനുസരിച്ചിട്ടവര് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് സംസാരിക്കാറുണ്ട് അപ്പോള് ഞാന് പറയാറുണ്ടങ്ങോട്ട് ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറയുകയാണല്ലോ എന്നൊക്കെ അതുപോലെതന്നെ വാ പോയ കോടാലീന്നൊക്കെ നമ്മള് പറയാറുണ്ട് എന്താണ് പറയുന്നേന്നവർക്ക് തന്നെ ഐഡിയയില്ല വായില് വരുന്നതെല്ലാം വിളിച്ചുകൂവുന്നു അതന്സരിച്ചിട്ട് ഒക്കെ സംസാരിക്കുന്നു ഇപ്പോഴത്തെ കുട്ടികളെല്ലാം അങ്ങനൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത്